അരികിൽ പതിയെ ഇടനെഞ്ചിൽ ആരോ മൂളും രാഗം ഈ പാട്ട് പാടാനെനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് ഞാനെപ്പഴും മൂളിക്കൊണ്ട് നിൽക്കുന്ന ഒരു സോങ് ആണ് ഇത് ഈ ഇതൊരു എനിക്കിഷ്ട്ടമുള്ള ഒരു സിനിമേലത്തെയാണ് ഒരു മുറേ വന്ത് പാർത്തയാന്ന് പറയുന്ന ഒരു സിനിമേലത്തെ പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് അതിലൊരു വരികളും ഞാനിടക്കെടക്ക് ഒക്കെ ആ പാട്ട് പാടാറുണ്ട് എവിടെപ്പോയാലും ആ പാട്ട് കേൾക്കാറും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട്ടമുള്ള ഒരു പാട്ടാണ് അത് മഴയെ അതിൽ മഴയെനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് നല്ലൊരു നല്ലൊരു ഇത് കെമിസ്ട്രി ഉള്ളൊരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് അത് കേൾക്കാനും പാടാനുമൊക്കെ ഭയങ്കര ഇഷ്ട്ടമുള്ളോരു പാട്ടാണ് ഇത് അതിൽ നല്ല രണ്ട് ആക്ടറാണ് അതിൽ ഉണ്ണിമുകുന്ദൻ ഉള്ള ഒരു ഫിലിമിലത്തെ പാട്ടാണ് ഇത്